ഹലോ ശ്രീലക്ഷ്മി ഗ്യാസേജൻസിയല്ലേ ആ ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമറാട്ടോ വിളിക്കുന്നെ എനിക്കിന്നലെ അവിടുന്ന് കൊണ്ടുവന്ന ഗ്യാസ് ഒരു സോപ്പ് ഇതും വിം ബാറിൻറ്റൊരു സോപ്പിട്ട് ഒട്ടിച്ച ഒരു ഗ്യാസ് സിലിണ്ടറായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ വന്ന് ആ കൊണ്ടുവരുന്ന ഡെലിവറി ബോയിയാണ് എനിക്ക് ഗ്യാസ് കണക്ട്യ്ത് തന്നത് അപ്പോള് ഞാൻ നമ്മളത് ശ്രദ്ധിക്കില്ലല്ലോ നിങ്ങളത് നോക്കിയിട്ടല്ലേ സാധാരണ ഗ്യാസ് കുറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അതിപ്പോള് നമ്മള് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറ്റി അങ്ങനെയാണപ്പോള് പുള്ളി കണക്ട്യ്തിട്ടാണ് പോയത് അപ്പോള് ഞാനന്ന് പകല് മുഴുവനും കുക്ക്യ്താരുന്നു അപ്പോള് എൻ്റെ ചേച്ചിയാണ് വന്ന് പറഞ്ഞത് ഇങ്ങനെ ഗ്യാസിന്റെയൊരു മണമുണ്ട് മണമുണ്ടെന്ന് അപ്പോള് എന്നിട്ടും ഞാനത് നോക്കിയില്ല അപ്പോഴത്തേക്കും ചേച്ചിയാണ് ഗ്യാസ് എടുത്ത് മാറ്റി നോക്കിയപ്പോഴത്തേക്കും ഗ്യാസിങ്ങനെ ലീക്ക്യ്തോണ്ടിരിക്കുവാണ് അതായത് വിം ബാറ് നമ്മുടെ പാത്രം കഴുകണ സോപ്പില്ലേ അതിട്ടിട്ടൊട്ടിച്ച് വെച്ചേക്കുവാന്ന് അപ്പോഴതിലെന്താണ് എന്നിട്ട് നിങ്ങള് വന്നിതെടുക്കാനോ ഒന്നിനും തയ്യാറായിട്ടില്ല അന്ന് വിളിച്ചുപറഞ്ഞിട്ട് പിന്നെ രാത്രി ഹസ്ബൻഡ് നൈറ്റ് ഓഫീസില് ഡ്യൂട്ടിക്ക് പോയ ഹസ്ബൻഡവിടുന്ന് വന്നാണ് ഗ്യാസ് സിലിണ്ടറെടുത്ത് റോഡിൻ്റെ സെൻറ്ററില് വെക്കാൻ തൊട്ടടുത്തുള്ള ആൾക്കാര് പറഞ്ഞത് വീടിനകത്ത് കുഞ്ഞ് പിള്ളേരുണ്ടായിരുന്നു അപ്പോള് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാല് അതിനകത്ത് ആരാണ് ഉത്തരവാദിത്തം പറയുന്നേ എന്നിട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോള് ഞങ്ങള്ക്ക് രാവിലെ വന്ന ഡെലിവറി ബോയി വന്നാ ഗ്യാസ് കുറ്റി അവരുടെ അച്ഛനും വന്ന് ഞങ്ങളുടെ വീട്ടില് വന്ന് ഞങ്ങളുടെ കുറ്റമാണെന്ന് ഇതാണ് അവര് എടുത്തുകൊണ്ടുപോയത് ഗ്യാസ് കുറ്റി അപ്പോള് അതിനകത്ത് എന്താണ് ഇനി അങ്ങനെയുള്ള ഇതാണെങ്കിൽ നമുക്കീ ഗ്യാസ് നമുക്ക് കണക്ട്യ്തിട്ട് ഞങ്ങള് വേറെ ഏതെങ്കിലും ഏജൻസിക്കാരുമായിട്ട് ബന്ധപ്പെടും ഇത് ഇത് ഭാരത് ഏജൻസി ആണ് എനിക്കുള്ളത് അപ്പോള് ഇനിയിപ്പോള് ഇന്ത്യൻ ഓയിലായിട്ട് ആവാം അത് നിങ്ങള് എനിക്ക് അതിനുള്ള തരണം അല്ലെങ്കില് ഇനി മേലാൽ ഇത്തരം കാര്യങ്ങളാവർത്തിക്കരുത്